ചെടികൾ വളർത്താൻ ഞാൻ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് ചാണകം മണ്ണ് പിന്നെ എല്ലുപൊടി ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെ പ്ലാൻറ് നിറച്ച് വെക്കാ ചെയ്യുന്നത് പിന്നെ സാധാരണ ചട്ടിയിൽ ആണെങ്കിൽ അല്ലാതെ നിലത്തു നടുന്നതും ഉണ്ട് റോസാ ഒക്കെ ആണെങ്കിൽ നിലത്ത് നടും പിന്നെ ബാക്കി എല്ലാം ഇങ്ങനെയാണ് നടുക അപ്പോൾ കുറെനാൾ നമുക്ക് നിൽക്കുകയും ചെയ്യും പിന്നെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് ചാണകപ്പാലോ അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെയാണ് ചെയ്യാറ് നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം വെള്ളത്തിൻറെ വെള്ളം വെള്ളാംശം നമുക്ക് മണ്ണിൽ നിൽക്കും ഈ പിന്നെ കൊക്കോ പീറ്റ് ചകിരിച്ചോർ ഇടുന്നതുകൊണ്ട് അല്ല ചകിരി നമ്മളീ തേങ്ങാ പൊളിക്കുന്ന ചകിരി അങ്ങനെ തന്നെ ഇറക്കിവെക്കുക എന്നിട്ട് ചട്ടിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇറക്കി വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് മണ്ണ് നിറക്കുക അപ്പം അത് ദ്രവിച്ചോളൂ അങ്ങനെ നിന്ന് വെള്ളം ഇങ്ങനെ നനഞ്ഞ് വെള്ളവും മണ്ണ് ഒക്കെ ആകുമ്പോൾ അത് ദ്രവിച്ച് വെള്ളത്തിൻറെ കണ്ടൻ്റ് ആ മണ്ണിൽ എപ്പോഴും നിലനിർത്താൻ അതിനു സാധിക്കും അങ്ങനെയും ചെയ്യാം ചാണകപ്പൊടി എല്ല് പൊടി നല്ലതാണ് പിന്നെ ചുവട്ടിലോട്ട് വരാതെ കുറച്ച് അകത്തി അത് ഒക്കെ ഇട്ട് കൊടുക്കും ചെയ്യും ഞാൻ അങ്ങനെ ഞാൻ ചെയ്യാറ്